ഞാൻ ശരിക്കും ഒരു ബിസ്നസ്സ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു ബിസ്നസ്സ് ആരംഭിച്ചത് എൻ്റെ ബിസ്നസ്സ് പ്രധാനമായും ഇലക്ട്രിക്ക് വർക്കുകൾ ഷോപ്പ് ഇലക്ട്രിക്ക് ഇലക്ട്രോണിക്സ് ഐറ്റം ഇലക്ട്രിക്ക് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഷോപ്പ് തന്നെയായിരുന്നു എൻ്റേത് അപ്പോൾ ഞങ്ങൾ ഒരു ആറു പേർ കൂടിയായിരുന്നു ആ ഷോപ്പ് തുടങ്ങിയത് അപ്പോൾ ആറുപേർ കൂടി തുടങ്ങിയ സമയത്ത് എല്ലാവരും ഒരുപോലെ തന്നെ തുക വീതിച്ചു എല്ലാവരും തുക കണ്ടെത്തി ഒരേ തുകയ്ക്കെല്ലാവരും ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ഒരു കുറച്ചുകാലം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിസ്നസ്സ് ലാഭത്തിലേക്ക് വന്നു ലാഭത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു കുഴപ്പമൊന്നുമില്ല അതു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടി പോകുന്നൊരു കാലമായിരുന്നു അതിനുശേഷം ഒരു കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഇതേ ബിസ്നസ്സ് ചെയ്യുന്ന കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്കും നമ്മുടെ ബിസ്നസ്സിനൊരു കുറച്ച് ചെറിയ ബിസ്നസ്സിലൊരു കുറവുണ്ടായി കുറവുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഈ ഇതിലുള്ള പങ്കാളികൾ തമ്മിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ വരികയും അത് എന്നാ പറയുന്നത് നമ്മളത്രയും കാലം ഉണ്ടായിരുന്നൊരു സ്നേഹബന്ധം അത് നഷ്ടപ്പെടാനുള്ള ഇടയായിട്ടുള്ളൊരു സാഹചര്യം ആ രീതിയിലേക്കായിരുന്നു വന്നത് അപ്പോൾ ഉള്ള ബന്ധം പോവുന്ന ഒരിത് വന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ ബുദ്ധിമുട്ടു പറഞ്ഞ് കുറേ പേർ ഒന്ന് രണ്ടുപേർ ഒഴിവായി പിന്നെ ലാസ്റ്റ് രണ്ടുപേരായി ഈ രണ്ടു പേരാണെങ്കിൽ തന്നെ നമുക്ക് മുമ്പോട്ടു കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരികയും ഓരോ എല്ലാത്തിനും പ്രശ്നങ്ങളായി അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ സംഭവങ്ങൾ വരും അതപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ബിസ്നസ്സ് നല്ലതായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ ലാഭമുള്ള സമയത്ത് ഒരിക്കലൊരു പ്രശ്നം വരാൻ വഴിയില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഒരു ബിസ്നസ്സ് ചെയ്യുമ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്തു തന്നെയായിരിക്കും അതിപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമുക്ക് തന്നെയാണ് അത് നമുക്ക് അതാണെപ്പോഴും നല്ലത് ഒറ്റയ്ക്കൊരു ബിസ്നസ്സ് ചെയ്യുക തന്നെയാണ് എപ്പോഴും ബെറ്ററെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരാൾ ആ വർക്ക് ചെയ്യുന്നില്ല മറ്റൊരാൾ ഞാൻ വർക്ക് ചെയ്യുമ്പം വേറൊരാൾ ചുമ്മാ വെറുതെ ഇരിക്കുന്നു ഞാൻ മാത്രം അധ്വാനിക്കുന്നുള്ളൂ എന്നു തുടങ്ങിയ ഒരു നൂറ് നൂറ് പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ ഒരാൾ ലീവെടുക്കുമ്പം മറ്റൊരാൾ സിനമയ്ക്ക് പോവുന്നു നമ്മുടെ സ്വന്തം പ്രസ്ഥാനമാവുമ്പോൾ നമുക്കാരേയും ബോധിപ്പിക്കേണ്ടതില്ലല്ലോ എന്നുള്ളൊരു ചിന്തകളൊക്ക വരും അങ്ങനെ പല പല കാരണം കൊണ്ടും എപ്പോഴും ഒരു ബിസിനസ്സെന്നുള്ളത് എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും പിന്നെ നമ്മൾക്ക് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെപ്പറ്റി തന്നെ നമ്മൾക്ക് വലിയൊരു അറിവില്ല നമ്മളെ കൂട്ടത്തിൽ ഉള്ളവർക്ക് അറിവു കൂടുതലാണെങ്കിൽ നമുക്ക് അറിവില്ലാത്തതായ കുറേ പ്രശ്നങ്ങൾ വരും ആദ്യമൊക്കെ അവരെന്തു പറഞ്ഞാലും നമ്മളതിനെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥ വരും അപ്പോൾ എപ്പോഴും നമ്മളെന്തു ബിസ്നസ്സ് തുടങ്ങിയാലും ഒന്നു നമ്മൾ ബിസ്നസ്ന് എന്നുള്ള എന്തു പ്രസ്ഥാനം തുടങ്ങിയാലും തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും അതേപ്പറ്റി കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം രണ്ടാമത്തെ കേസ് ഞാനാദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരെണ്ണം ഒറ്റയ്ക്ക് തുടങ്ങുക തന്നെയാണ് അതിൻ്റെ അകത്തെപ്പോഴും നല്ലത് ഒറ്റയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മളതിനെ പഠിച്ച് പഠിച്ച് കൃത്യമായി പഠിച്ച് നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു ബിസ്നസ്സ് നടത്തുന്നതെങ്കിൽ അതായിരിക്കും എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമുക്കൊത്തിരി വഞ്ചനകളും ചതിക്കുഴികളും ഒളിഞ്ഞിരിക്കുന്ന ഒരു മേഖല തന്നെയാണ് ബിസ്നസ്ന് എന്നുള്ളതാണ് അതിൻ്റകത്തേറ്റവും നല്ല കാര്യം എപ്പോഴും എങ്കിലും എപ്പോഴും നമ്മളൊന്ന് ഒറ്റയ്ക്കുതന്നെ തുടങ്ങുക എന്നുള്ള ഒരഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം